എൻ്റെ ഉൽപ്പന്നങ്ങൾ മാക്സിമം വിൽക്കുന്നത് ഞാൻ നേരിട്ടാണ് അധികവും മധ്യവർത്തികളെ ആശ്രയിക്കാറില്ല എങ്കിലും ചില സമയങ്ങളിൽ അവരുടെ സഹായം ഉണ്ടെങ്കിലും അവരെന്നെ വളരെ അധികം ചൂഷണം ചെയ്യുകയില്ല കാരണം അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഞാൻ മധ്യവർത്തികളായിട്ട് സ്വീകരിക്കാറുള്ളത് അവർക്ക് ഒരു തുക അതായത് എൻ്റെ ഉൽപ്പന്നം വിറ്റ് വിറ്റ് ലഭിക്കുന്ന സാ പൈസയുടെ ഒരു ശതമാനം അല്ലങ്കിൽ രണ്ട് ശതമാനം അവർക്ക് ആദ്യമേ ഞാൻ കമ്മീഷൻ ആയിട്ട് കൊടുക്കും അതുകൊണ്ട് അവർ എന്നെ വല്ലാതെ ചൂഷണം ചെയ്യാറില്ല പിന്നെ നേരിട്ടാണ് കൂടുതൽ സാധനങ്ങള് ഞാൻ വിൽക്കുക എൻ്റെ ഉൽപ്പന്നങ്ങളായ കോഴിമുട്ട വെളിച്ചെണ്ണ നാളികേരം നാളികേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ആവുന്നത് ഞാൻ നേരിട്ടാണ് വിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മധ്യവർത്തികൾ എന്നെ വല്ലാതെ ചൂഷണം ചെയ്യുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യാറില്ല